ഹലോ ഹലോ മേഡം ഇത് ഹുണ്ടായിൽ നിന്നാണ് വിളിക്കുന്നത് മേഡം നിങ്ങൾ പുതിയതായിട്ട് കാറ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഇപ്പോൾ ഇവിടെ ഹോണ്ടായിടെ ഒരു ഓഫറുണ്ട് രണ്ട് മു മോ ഒരു വർഷത്തെ വാറണ്ടിയുണ്ട് കാറിന് സർവീസ് കാര്യങ്ങളൊക്കെ ഞങ്ങള് ചെയ്ത് കൊടുക്കുന്നയാണ് അപ്പം നിങ്ങൾക്ക് അതിനോട് താൽപ്പര്യം ഉണ്ടോന്നാണ് ചോദിക്കേണ്ടത് മുപ്പത് ലക്ഷമാണ് വരുന്നത് കാറിന് മേഡം നിങ്ങൾക്ക് ലോൺ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ ലോണ് എങ്ങനെയുള്ള ലോണാണ് ആണോ ഇപ്പം എത്ര വർഷമായി അത് എടുത്തിട്ട് ആ ഞങ്ങള് ലോണായിട്ടാണ് ചെയ്ത് തരുന്നത് നിങ്ങളിപ്പോൾ കാറ് മേടിക്കാനോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങള് ലോണ് മുഖേന അത് ചെയ്യാവുന്നതാണ് കേട്ടോ ആ മേഡമൊന്ന് ആ മേഡമൊന്ന് നോക്കീട്ട് പറയണൊട്ടോ മേഡത്തിൻ്റെ പേരെന്താണ് എന്താ മേഡം ആ ആ ഇത് എവിടെയാണ് സ്ഥലം മേഡം കോഴിക്കോട് മുക്കവാണല്ലേ ആ മേഡം ഇപ്പം നല്ല ഓഫറുള്ള സമയാണ് നിങ്ങള് കാറ് മേടിക്കുവാണെങ്കില് ഇവിടുന്ന് തന്നെ വന്ന് മേടിക്കണെ ഞങ്ങള് ഇവിടെ കോഴിക്കോട് താമരശ്ശേരിയാണ് ഞങ്ങളുടെ ഷോറൂം ഉള്ളത് ആ ഓക്കെ ആ മേഡം ഇപ്പം എത്ര വർഷമായെന്നാണ് പറഞ്ഞത് ലോണിന് ഓ മേഡത്തിൻ്റെ ഹസ്ബൻഡിന് എന്താ ജോലി

ആ ഉം അന്വേഷിച്ച് അത് നോക്കിയിട്ട് പറയണം കേട്ടോ പിന്നെ ഞങ്ങളുടെ ന ആ നാല് ശതമാനാണ് കൊടുക്കുന്നത് ആ ഒര് അഞ്ച് വർഷം കൊണ്ട് അടച്ച് തീർത്താലും മതി പക്ഷെ ഞങ്ങൾക്ക് അഡ്വാൻസായിട്ട് കുറച്ച് ക്യാഷ് ആദ്യം കിട്ടണം മേഡം ആ വീട്ടിലൊന്ന് ചോദിച്ചിട്ട് ഒന്ന് വിളി ഈ നമ്പറിൽ ഒന്ന് കോള് ചെയ്യണം കേട്ടോ ആ ഓക്കെ മേഡം താങ്ക് യൂ